നമ്മുടെ പ്രദേശത്തെ ഗതാഗതത്തേ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമ്മുടെ റോഡിന് വീതി കുറവാണ് അതേപോലെതന്നെ വീതി കുറവാണെങ്കിൽ തന്നെ നമുക്കൊരു വണ്ടി വന്നിട്ടുണ്ടേൽ അതിന് സൈഡ് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു നല്ല ടാറിങ്ങും നല്ല വീതിയുള്ള റോഡുവാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല ഇത് വീതിയുവില്ല പിന്നെ ചുറ്റും റോഡിനെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വശങ്ങളിലായി കാടും പിടിച്ച് കിടക്കുന്നു അതൊക്കെ വെട്ടി ലെവലാക്കി റോഡിന് വീതിയുണ്ടങ്കിൽ തന്നെ നമ്മളെ കുറേ അപ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴുവാക്കാൻ പറ്റും അതേപോലേ താളൂര് ചീരവള റോഡൊക്കെ അപേക്ഷിച്ച് നോക്കയാണെങ്കിൽ ആകെ ചെളികുണ്ടമായിട്ട് കിടക്കുന്ന റോഡുകളാണ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് റോഡുകളുടെ അവസ്ഥ അതുകൊണ്ട് എപ്പോഴും നമ്മൾ റോഡിന് വീതി കൊടുക്കണം എപ്പോഴും ടാറിങ് നന്നായി വരണം എന്നാലേ നമുക്ക് വണ്ടികൾക്ക് പോകാനും സൈഡ് കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയുള്ളു